പരമ്പരാഗത നീന്തല് എന്നു വെച്ചാല് നമ്മുടെ വീടിനടുത്തുള്ള കുളത്തിൽ ആറ്റിൽ ഒക്കെ നീന്തി വന്നതാണ് പരമ്പരാഗതമായിട്ടുള്ളത് പക്ഷെ പ്രൊഫഷണല് എന്നു പറയുമ്പോൾ നമ്മൾ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാന് വേണ്ടീട്ടും അപ്പോൾ അതുവഴി നമുക്കൊരു ജോലിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എയിമിലൂടെ നമുക്ക് എയിമിൽ കണക്കാക്കിയിട്ടുള്ള പോകുന്നതാണ് പ്രൊഫഷണല് അതൊരു കറക്റ്റായിട്ടുള്ള ട്രെയിനിംഗ് ഉണ്ട് ആ അങ്ങനെയൊക്കെ ചെയ്യും അതാണ് പ്രൊഫഷണല് നീന്തല് എന്നു പറയുന്നത് പരമ്പരാഗതം എന്നു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് മെച്ചപെടുത്താനോ അല്ലെങ്കില് നമുക്ക് അതിലൂടെ ഒരു ജോലി നേടാനോ ഒന്നും കഴിയുന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പ്രോഫഷനലായിട്ട് നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്നു നമുക്കിഷ്ടപ്പെട്ട ഐറ്റം സെലക്റ്റ് ചെയത് ഇപ്പം ബട്ടര്ഫ്ലൈ സ്ട്രോക്കുണ്ട് ബ്രേസ്റ്റ് സ്ട്രോക്കുണ്ട് ബാക്ക് സ്ട്രോക്കുണ്ട് ഫ്രീ സ്റ്റൈലുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് ഐറ്റം മൂന്നാല് ഇനം ഐറ്റങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് ചേരുന്നത് ഏതാണ് അല്ലെങ്കില് നമുക്ക് ഏറ്റവും ഈസിയയിട്ട് കൈകാര്യം ചെയ്യാന് പറ്റുന്നത് ഏത് ഐറ്റം ആണ് അപ്പം നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാന് നീന്തുന്ന സമയത്ത് എനിക്ക് ബ്രസ്ട്രോക്കാരുന്നു ഏറ്റവും ഈസിയായിട്ട് എനിക്ക് തോന്നിയിട്ടൂള്ളത് അപ്പോൾ എന്റെ ഐറ്റം അതിലായിരുന്നു അപ്പം നമുക്ക് അതിൽ ആ മത്സരങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടുതൽ മത്സരങ്ങളില് പങ്കെടുത്ത് ജയിക്കാനുമൊക്കെ പറ്റുമായിരുന്നു പിന്നെ ഏറ്റവും ഇഷ്ടം എനിക്ക് ഞാനും നദിയിലാണ് നീന്തി പഠിച്ചത് കാരണം ഞാന് പഠിക്കുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂള് പണി ചെയ്യനായിട്ട് പൊളിച്ചിട്ടേക്കെയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാന് നദിയിലാണ് നീന്തൽ പഠിച്ചത് പിന്നീടാണ് കുളത്തിലേക്ക് വരുന്നത് പിന്നെ കടലില് ഞാന് നീന്തിയിട്ടില്ല നദിയിലാണോ നീന്താൻ കുളത്തിലാണോ നീന്താൻ ഇഷ്ടം എന്നു ചോദിച്ചാല് എനിക്ക് കുളത്തിൽ നീന്തനാണ് ഇഷ്ടം നദിയിലും കടലുമൊക്കെ നമുക്ക് ഡെയിഞ്ചർ ആണ് നമുക്ക് സേയ്ഫ് ഒട്ടും സേഫ്റ്റി ഇല്ലാത്തൊരു കാര്യമാണ് കുളത്തിലാകുമ്പോൾ നമുക്ക് വേറെ പേടിക്കാനൊന്നും വേണ്ടാ നമുക്ക് ഈസിയായിട്ട് നീന്താം നമ്മുടെ ആരോഗ്യത്തിനും കുഴപ്പം ഇല്ല ആറ്റിലെയും കടലിലെലെക്കെ വെള്ളം നമുക്ക് വിശ്വസിക്കാന് പറ്റില്ല അതെന്തു വെള്ളമാണ് എങ്ങനെയുള്ള വെള്ളമാണ് എന്നൊന്നും നമുക്കറിയാന് പറ്റില്ല പക്ഷേ നീന്തല് കുളമാകുമ്പോ അവർ കറക്റ്റായിട്ട് പ്യൂരിഫൈ ഒക്കെ ചെയ്ത് നീറ്റാക്കി ഇട്ടേക്കണകൊണ്ട് എനിക്ക് തോന്നാണു എല്ലാം കൊണ്ടും നല്ലത് നീന്ത് കട കുളത്തിൽ നീന്തുന്നത് നീന്തൽ കുളത്തില് നീന്തുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്